ഹലോ ഇത് ഗ്യാസ് സിലിണ്ടർ ഏജൻസിയല്ലേ അപ്പം ഞാൻ വിളിച്ചത് നമ്മുടെ ഗ്യാസ് ബുക്കിങ് റദ്ദാക്കാൻ വേണ്ടീട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പുതിയൊരു പാചകരീതി ഉപയോഗിക്കാൻ വേണ്ടി തീരുമാനിച്ചേക്കുവാണ് ചില പരിമിതികൾ മൂലം വൈധ്യുതി ഉപകരണങ്ങൾ കൊണ്ട് അതായത് നമ്മുടെ ഇൻഡക്ഷൻ കുക്കറ് അങ്ങനുള്ള ചില കാര്യങ്ങൾകൊണ്ട് ഞങ്ങളിപ്പം പാചകരീതിയിലോട്ടോന്നു മാറാൻ വേണ്ടി തയ്യാറെടുക്കുവാണ് അപ്പം അതിനെത്തുടർന്നാണ് ഗ്യാസ് ബുക്കിങ് റദ്ദാക്കാൻ വേണ്ടി ഞങ്ങൾ വിളിച്ചത് അപ്പം നിങ്ങൾക്കതിനുവേണ്ട ഞങ്ങളുടെ ഭാഗത്തുന്നുവേണ്ട എന്തെല്ലാം ആവശ്യങ്ങളാണെന്നൊക്കെയൊന്നു പറഞ്ഞുതരുവായിരുന്നെങ്കിൽ ഞങ്ങൾക്കത് ചെയ്യാമായിരുന്നു പിന്നെ ഉടൻ തന്നെ വേണംകേട്ടോ കുറച്ച് സാഹചര്യങ്ങൾ പ്രശ്നങ്ങൾ ഒക്കെ കൊണ്ടാണ് പിന്നെ റെഫെറെൻസ് നമ്പർ ഞാനിപ്പം പറയാം ഒൻപത് ഒൻപത് മൂന്ന് പൂജ്യം ആറ് രണ്ട് എട്ട് നാല് ഒന്ന് മൂന്ന് പൂജ്യം പൂജ്യം ഇതാണ് നമ്മുടെ ഗ്യാസിൻ്റെ ബുക്കിലുള്ള ആ നമ്പറ് തന്നേക്കണത് നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലും വേണമെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട ചെയ്യാൻ ഞങ്ങൾ തരാൻ വളരെ തയ്യാറാണ് ഞങ്ങക്കത്രക്ക് അത്യാവശ്യായതോണ്ടന്നെ ഉടൻതന്നെ റദ്ദാക്കിത്തരണംന്ന് അഭ്യർത്ഥിക്കുവാണ് ഇനി ഞങ്ങൾ അവിടെ ഏജൻസിലോട്ട് വരേണ്ടതോ അങ്ങനെന്തേലും കാര്യങ്ങളുണ്ടേൽ പറഞ്ഞാൽ മതിട്ടോ പിന്നെ പെട്ടെന്നു തന്നെ ചെയ്തുതരായിരുന്നെങ്കിൽ അത്രേം നല്ലതായിരുന്നു നമ്മുടെ വൈദ്യുതി ഉപകരണങ്ങൾ ഉപയോഗിച്ചും പാചകം രീതി ഇപ്പം വന്നു കൊണ്ടിരുക്കുന്ന ഒന്നാണെല്ലോ അപ്പം അതും കൂടൊന്ന് നോക്കി നോക്കാംന്ന് ഓർത്തായിരുന്നു പിന്നെ ചില സാഹചര്യ പരിമിതികൾ മൂലം ഞങ്ങൾക്കിതിലോട്ട് മാറേണ്ടി കൂടെവന്നു ഇപ്പം ഗ്യാസ് സിലിണ്ടർ കൊറച്ചുനാളത്തേന് ബുക്കാക്കാൻ ആഗ്രഹിക്കുന്നില്ല അതോണ്ടാണിത് റദ്ദാക്കാൻ വേണ്ടി പറയുന്നത് അപ്പോൾ അത്രുള്ളു എത്രേം പെട്ടെന്നു തന്നെ റദ്ദാക്കിത്തരാൻ അഭ്യർത്ഥിക്കുവാണ് എന്തെങ്കിലും ആവശ്യം ഞങ്ങളുടെ ഭാഗത്തുന്ന് ഉണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട ചെയ്താൽ മതി